കാലത്തിനനുസരിച്ച് മാറുന്ന വാര്ത്താമാധ്യമങ്ങളുടെ പ്ലാറ്റ്ഫോമുകൾ പത്രം റേഡിയോ ടി വി ഇന്റെര്നെറ്റ് സംബന്ധിച്ചിട്ടുള്ള അനുഭവം പഴയകാല അനുഭവങ്ങളാണ് നമ്മുടെ മനസ്സിലെന്നും നിലനില്ക്കുന്നത് പഴയകാല പത്രങ്ങളായാലും അതുപോലെ തന്നെ കഥാപുസ്തകങ്ങള് റേഡിയോ പ്രോഗ്രാമുകള് ടി വി പ്രോഗ്രാമുകള് ഇതെല്ലാം നമ്മുടെ മനസ്സിലെന്നും നമുക്ക് നല്ല നല്ല അനുഭവങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത് നമ്മുടെയൊക്കെ ബാല്യകാലത്തെ എന്നും നമ്മുടെ ബാല്യകാലസ്മരണകള് മധുരമായി നിലനില്ക്കുന്നത് നിലനില്ക്കുന്നതിന് ഏറെ പങ്കുവഹിച്ചിട്ടുള്ള വാര്ത്താമാധ്യമങ്ങളാണ് റേഡിയോ ദൂരദര്ശന് ഇങ്ങനെയുള്ള ചാനലുകളൊക്കെ ദൂരദര്ശന്റെ പഴയകാല പരിപാടികളെ അപേക്ഷിച്ച് ഇന്നത്തെ പരിപാടികളിൽ വളരെയധികം മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ദൂരദര്ശന് പരിപാടികള് നമ്മുടെ മനസ്സിലെന്നും നിലനില്ക്കുന്നതാണ് നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മള് കൂടുതലും ദൂരദര്ശന് പ്രോഗ്രാമുകളാണ് കണ്ടിട്ടുള്ളത് അവ ഇന്നും നമ്മുടെ മനസ്സില് എത്ര കാലം കഴിഞ്ഞാലും തങ്ങിനില്ക്കുന്ന മധുരമായ ഓര്മ്മകളാണ് ഉള്ളത് ബാലലോകം റേഡിയോയിലെ ആണെങ്കിലും ബാലലോകം പരിപാടി അതുപോലെ ചലച്ചിത്രഗാനങ്ങള് ശബ്ദരേഖ ഇതൊക്കെ എന്നും മനസ്സില് തങ്ങി നില്ക്കുന്നുണ്ട് ദൂരദര്ശനിലെ ചിത്രഗീതം തിരനോട്ടം ഇത് ഇതൊക്കെയെന്നും മനസ്സിൽ നിലനില്ക്കും എന്നും ഏഴ് മണിയാകുമ്പോള് ഉള്ള ന്യൂസ് അതുപോലെ ആഴ്ചയിലൊരിക്കല് വരുന്ന സിനിമാ മലയാളസിനിമ ഇതൊക്കെ കാണാന് വളരെയധികം ആഗ്രഹം ഇപ്പോഴുമുണ്ട് അന്നത്തെ ഓര്മ്മകളെന്നും നമ്മുടെ മനസ്സിലെന്നും നിലനില്ക്കുന്നു അതുപോലെ ദൂരദര്ശന് എന്റെ പരിപാടി കഴിഞ്ഞാല് പിന്നെ ഇടയ്ക്ക് ഏഷ്യാനെറ്റും നമ്മുടെ മനസ്സില് തങ്ങിനില്ക്കുന്ന ഒരു ചാനല് തന്നെയാണ് എങ്കിലും ദൂരദര്ശനിൽ ആഴ്ച് ആഴ്ച് കാത്തിരുന്ന് ദൂരദര്ശനിലെ ഓരോ പ്രോഗ്രാമുകളും കാണാറുണ്ട് കാണാറുണ്ടായിരുന്നു ഇന്ന് പഴയ പരിപാടികളെയപേഷിച്ച് ഇന്നത്തെ പരിപാടികള് ഒക്കെ വളരെയധികം മാറ്റം സംഭവിച്ചിട്ടുണ്ട് പഴയകാല പരിപാടികള് നമ്മള് ആഴ്ച തോറും കാത്തിരുന്ന് കാണുമായിരുന്നു ഞായറാഴ്ച ദിവസങ്ങളില് വരുന്ന മഹാഭാരതം രാമായണം ശ്രീകൃഷ്ണന് അതൊക്കെ നമ്മളാഴ്ചതോറും കാത്തിരുന്ന് കാണുന്ന പ്രോഗ്രാമുകളായിരുന്നു